ഇത് സോനയല്ലേ ഞാൻ ഷൈന ആണേ കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നതാണ് എൻ്റെ കല്ല്യാണം ആണ് നെക്സ്റ്റ് മന്ത് ട്വൻ്റി സിക്സ്ത്തിന് അതിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് വീട്ടിൽ നിന്ന് തന്നെയാണ് കല്ല്യാണം ഉള്ളത് എൻ്റെ കസിൻ്റെ കല്ല്യാണം നിങ്ങളായിരുന്നു ചെയ്തു കൊടുത്തിരുന്നത് എനിക്കും എൻ്റെ ഫാമിലിക്കും ഭയങ്കര ഇഷ്ടം ആയിന് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തന്നെ കോൺടാക്ട് ചെയ്തത് ഉണ്ണിക്കണ്ണൻ ആ അതെ ഹൽദിയും കല്ല്യാണത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും ഫുഡായാലും എൻ്റെ ബ്രൈഡിൻ്റെ മേക്കപ്പ് ആയാലും ഡ്രസ്സ് ആയാലും ഹൽദി ഡ്രസ്സും അതുപോല തന്നെ കല്ല്യാണ ഡ്രസ്സും എല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് ഫോട്ടോഗ്രാഫറ് കളർ എങ്ങനെയാണ് ഹസ്ബൻ്റിൻ്റെ കളറും ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളറ് വേണം എന്ന് ഉണ്ട് ഒരു ലൈറ്റ് റോസ് കളറ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു ആ അതെ അതെ ഓക്കെ ഓക്കെ ഞങ്ങളും ആയിട്ട് കോസ്റ്റ്യൂമുവായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്തുതരികയാണെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്ത് തന്നാൽമതി ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഏൽപ്പിക്കണം

ഓക്കെ നിങ്ങളത് പന്തൽ എല്ലാം കൂടി എത്ര റേറ്റ് ആവുന്നുള്ളത് നിങ്ങൾ ഒന്ന് എൻ്റെ ഈ നമ്പറിൽ തന്നെ ആണ് വാട്ട്സ്ആപ്പ് ഉള്ളത് അങ്ങനെ ആണെങ്കിൽ ആ നമ്പറിൽ ഒന്ന് അയച്ചുതരിക ഇനി പന്തൽ ഒഴികെ ബാക്കി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എത്ര എമൗണ്ട് വരും എങ്ങനെയാണെന്നുള്ളത് ഒന്ന് അയച്ച് തരാമോ ആ വെഡ്ഡിംഗിന് സാരി ഹൽദിക്ക് ലെഹങ്ക മതി ഓക്കെ ഓക്കെ അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റാക്കിക്കോളാം നിങ്ങൾക്ക് അന്നത്തെ ദിവസം അവൈലബിളല്ലേ ആ ആ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളെ കയ്യിൽ ലെഹങ്കയുടെയും സാരിയുടെയും ഒക്കെ മോഡൽ ഇണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പിൽ ഒന്ന് സെൻ്റ് ചെയ്ത് തരണം ഓക്കെ ഓക്കെ അപ്പം നിങ്ങളെ ഡിസൈനിന് അനുസരിച്ച് ആയിരിക്കും അല്ലേ എമൗണ്ട് വരുന്നത് ബ്ലൗസിൻ്റെ ഒക്കെ ഓക്കെ ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ ഏകദേശം ഉദ്ദേശിക്കുന്ന മോഡല് അതുപോലെ നിങ്ങൾ അയക്കുന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും ഉണ്ടെങ്കിൽ രണ്ടും കൂടി ഒന്ന് നോക്കിയിട്ട് കൺഫോമ് ചെയ്യാം ഓക്കെ ഹൽദിക്ക് നോൺവെജും അതുപോലെ കല്ല്യാണ ദിവസം ആണെങ്കിൽ സദ്യ മതി അതിൻ്റെ റേറ്റ് നിങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഒരു സദ്യയ്ക്ക് ആവുമ്പോൾ ഒരു ഇല വച്ചിട്ട് ഉള്ള റേറ്റ് ആണോ വരുന്നത് എങ്ങനെയാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാണ് എന്ന് വച്ചു കഴിഞ്ഞാൽ അതും എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾ വാട്ട്സ്ആപ്പിൽ സെൻ്റ് ചെയ്തു തന്നാൽ നല്ല ഉപകാരം ആയിരുന്നു

ഓക്കെ ഓക്കെ നിങ്ങൾ ഡീറ്റെയിൽസ് എന്തായാലും വാട്ട്സ്ആപ്പിൽ സെൻ്റ് ചെയ്യ് അതിന് ശേഷം ഞാൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ വിളിക്കാം ഇല്ല ഇല്ല ഓർണമെൻ്റ്സ് എടുത്തിനില്ല എടുക്കണത്ര ടെമ്പിൾ ഡിസൈനാണ് ഓക്കെ എൻ്റെ ഓർണമെൻ്റ്സ് കമ്പ്ലീറ്റ് ടെമ്പിൾ ഡിസൈൻ ആയിരിക്കും ആ ആ ആ യെസ് യെസ് ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു നിങ്ങൾ എന്നാൽ അയച്ചതിനു ശേഷം ഞാൻ വിളിക്കാം ആ ഓക്കേ